ഞാന് പൊതുവെ ഒരുപാട് യാത്രകള് ചെയ്യാന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് യാത്ര ചെയ്യാന് ഏറ്റവും ഇഷ്ടമെ ന്ന് പറയുന്നത് മലകളാണ് ആ മലനിരകളില് പോകാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം കാരണം ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ധാരാളം മലനിരകളുണ്ട് പൊന്മുടി ബ്രൈമൂറ് ഇവയൊക്കെ അതിൽ ചിലത് മത്രമാണ് ഞാന് എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളില്ലെല്ലാം ഈ മലനിരകളിൽ പോകാറുണ്ട് നമ്മള് ഇപ്പോൾ രാവിലെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് രാവിലെ മേഘങ്ങളെ തൊടാന് കഴിയും പിന്നെ അവിടെ മഞ്ഞ് മൂടി നില്ക്കുന്ന നല്ലൊരു കാലാവസ്ഥയായിരിക്കും അതെല്ലാം ഒരുപാട് ആസ്വാദിക്കാന് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം സമയങ്ങളാണെങ്കില് നമ്മൾ ഇപ്പം സൂര്യാസ്ഥമയം കാണണം അതിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതും നമുക്ക് ഒരിക്കലും മറക്കാന് പറ്റാത്തൊരു കാഴ്ചയാണ് കാരണം ആ മലനിരകൾ ഫുള്ള് ഒരു ചുവന്ന കളറിൽ ഒരു പട്ട് വിരിച്ച കണക്ക് നില്ക്കുന്നത് കാണാം ഒരിക്കലും നമുക്ക് അതൊന്ന് കണ്ടാൽ കണ്ണിന് ഒരിക്കലും മതി വരാത്ത കാഴ്ചകളാണ് ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാഴ്ചകളാണ്